ഇന്ഡ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സംസ്കാരത്തിന്റെ കാര്യത്തിലും പാരമ്പര്യ പാരമ്പര്യത്തിന്റെ വിശ്വാസത്തിൻറെ കാര്യത്തിലും സംസ്കാരത്തിന്റെ കാര്യത്തിലും എല്ലാ തരത്തിലും വ്യത്യസ്തപ്പെട്ടിരുക്കുന്നു ഇന്ഡ്യയില് തന്നെ പല കള്ച്ചറിലുള്ള ആൾക്കാരുണ്ട് പല സാംസ്കാരിക പാരമ്പര്യങ്ങളും പല വിശ്വാസങ്ങളും കാത്തൊരു സംരക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം നമ്മുടെ ഇന്ഡ്യേനെ മുഴുവന് ആള്ക്കാരെയും ബെയിസ് ചെയ്ത് പറയാന് പറ്റില്ല ഇന്ഡ്യ കണ്വേര്ട്ട് ആണ് ഇരുപത്തൊമ്പത് സ്റ്റേറ്റ് ഉണ്ടെങ്കില് അതില് ഇരുപത്തൊമ്പത് സ്റ്റേറ്റിലെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്താൽ കുറെ ജില്ലകള് ഒക്കെ വരുന്ന ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയിലെ പാരമ്പര്യം എന്ന് വച്ചിട്ടുണ്ടെങ്കില് ഓരോ സ്ഥലത്ത് ഓരോന്നാണ് വിശ്വാസങ്ങള് പലതരമാണ് അപ്പം അതേ പോലെ തന്നെ അവരുടെ ഭാഷ സംസ്കാരം രീതി ഭക്ഷണരീതി വസ്ത്രരീതി എല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അതേ പലതരത്തില് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു വിശ്വാസങ്ങള് ബുദ്ധമതം ഉണ്ട് ജൈനമതം ഉണ്ട് പിന്നെ ക്രിസ്റ്റ്യന് മതം ഉണ്ട് ഇസ്ലാമിക് മതം ഉണ്ട് ഹിന്ദുമതം ഉണ്ട് ഹിന്ദുമതം തന്നെ കണ്വേര്ട്ടായിട്ട് കുറെ മതങ്ങള് ഉണ്ട് ഇപ്പം ഇതൊക്കെ ഡിഫ്രന്റ് ഡിഫ്രന്റായിട്ട് പലരീതിയില് പല ആചാരങ്ങള് ഒത്തിരി നാളുകള്ക്ക് മുമ്പേ ആചാരങ്ങള് പിന്തുടര്ന്നു വരുന്ന ആളുകളാണ് ഇന്ത്യയില് ഉള്ളത്